ഇന്നത്തെക്കാലത്ത് യുവജനങ്ങൾ എറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് എന്നു പറയുന്നത് ഇൻസ്റ്റാഗ്രമാണ് ഇൻസ്റ്റാഗ്രാമ് പിന്നെ നമ്മുടെ അതായത് ഗെയിമിംഗ് ആപ്പുകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് പിന്നെ ഗൂഗിൾ പേ ഫോൺപേ അങ്ങനെയുള്ള പെറ്റിഎം അങ്ങനെയൊക്കെ ഉള്ള ആപ്പുകൾ കൂടുതലും കാരണം അവർ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ട് കൊറോണ വന്നതിൽപ്പിന്നെ ചെറിയ കുട്ടികൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ വരെ സ്മാർട്ട് ഫോണുണ്ട് അപ്പം ദോഷം എന്ന് പറയാമെന്നു വച്ചാൽ ഒത്തിരി ദോഷങ്ങളുണ്ട് കാരണം സോഷ്യൽ മീഡിയ ഉപയോഗം എല്ലാ തരത്തിലും ദോഷമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പുതിയ പുതിയ ബന്ധങ്ങൾ തേടി പോകുമ്പം അതു ചെറിയ മക്കളിലേക്ക് എത്രത്തോളം അതിൻ്റെ നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് അപ്പം നല്ല വശം മനസ്സിലാക്കി മുന്നോട്ടു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ചീത്ത വശത്തുകൂടിയാണ് പോവുന്നതെങ്കിൽ നമ്മൾ വലിയ കുഴിയിൽപ്പോയി വീഴും പിന്നെ നമുക്ക് കയറിവരാൻ ഭയങ്കര പ്രയാസമായിരിക്കും പക്ഷെ നല്ല വശം മാത്രം നമ്മൾ മുൻകണ്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം സോഷ്യൽ മീഡിയയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ ഇനിയുള്ള യുഗം നിയന്ത്രിക്കുന്നത് ഒരു സ്മാർട്ട് ഫോണാണ് ഏഹ് കാരണം എല്ലാ സ്ഥലത്തും നമുക്ക് ഈ സ്മാർട്ട് ഫോൺ വച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും സംസാരിക്കാം പക്ഷെ അതിനെപ്പോലെതന്നെ ദോഷ വശങ്ങളുമുണ്ട് ഈ സ്മാർട്ട് ഫോണിന് അപ്പോൾ എല്ലാം കണ്ടറിഞ്ഞു പെരുമാറിയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോഴത്തെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് യുവജനങ്ങളൊക്കെ പിന്നെ അതായത് സൂം പോലെ പിന്നെ ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള ആപ്പുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അത് നല്ലതുമാണ് അതേപോലെ ദോഷവുമാണ് ആപ്പുകൾ